മൃഗവളർത്തലുമായി ബന്ധപ്പെട്ട് പൊതുവായ നിയന്ത്രണങ്ങളും നിയമങ്ങൾക്കും നിയമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കർഷകർക്ക് കർഷകർ ആദ്യം അതനുസരിച്ച് തന്നെയാണ് ആ വളർത്തലുമായിട്ട് മുന്നോട്ടുപോകേണ്ടത് പോകേണ്ടത് പരിസ്ഥിതിനിയന്ത്രണങ്ങളുണ്ട് മൃഗങ്ങളെ വളർത്തുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായ രീതിയിൽ വളർത്താൻ പാടില്ല പരിസ്ഥിതിയെന്നുവെച്ചാൽ അവരുടെ കാഷ്ടങ്ങൾ ഇതെല്ലാം അത് വേണ്ടപോലെ നമ്മളത് മറവ് ചെയ്യാനും അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാനൊക്കെ ആയിട്ട് ഇല്ലെങ്കിൽ പിന്നെ ഇപ്പം ഉദാഹരണത്തിന് പന്നി വളർത്തൽ പന്നി വളർത്തലിന് ചുറ്റുപാടും വീടുകൾ ഇത്ര കിലോമീറ്റർ അകലത്തിൽ പാടുള്ളൂ പിന്നെ അവരുടെ കാഷ്ടവും അതും ഇതുമൊക്കെ പ്രത്യേകം നമ്മൾ കുഴിച്ച് മറവ് ചെയ്യുവാനുമൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ കിട്ടണം ഇല്ലെങ്കിൽ നാട്ടുകാരും അടുത്തുള്ളവരും ഒക്കെ ബഹളമുണ്ടാക്കും പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് കൃഷി ഈ കാർഷിക ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടാനായിട്ട് ഇന്ന് ഒത്തിരി യൂട്യൂബ് ചാനലുകളും എല്ലാം ഉണ്ട് ഏതെങ്കിലും യൂട്യൂബ് ചാനലുകൾ പിന്നെ പുസ്തകങ്ങളുണ്ട് വായിക്കാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്